ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ മഴയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് വെള്ളത്തിനും എല്ലാത്തിനും ഭയങ്കര ബുട്ടിമുട്ടാണ് കുടിവെള്ളം ഇല്ല പിന്നെ ചുറ്റുമുള്ള ഈ പരിസരത്തുള്ള മരങ്ങളും പിന്നെ മണ്ണ് നീക്കം ചെയ്യുന്നതും അതെല്ലാം കാരണമാണ് വരൾച്ച ഉണ്ടാകുന്നത് തീരെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് എന്നു പറഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ വേനൽ മഴയില്ലാത്തതാണ് തീരെ പ്രശ്നം അതുകൊണ്ട് പിന്നെ മഴ ലഭിച്ചാൽ വെള്ളത്തിനൊന്നും പ്രശ്നമില്ല ഈ വർഷം വളരെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്നു വച്ചാൽ മഴ തീരെ കുറവാണ് മഴ പെയ്തിട്ടേയില്ല അതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുള്ളു ഇവിടെ വയനാട്ടിലങ്ങനെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളം എവിടെയും വെള്ളം തന്നെയില്ല അതുകൊണ്ട് കിണറ്റിലെല്ലാം വളരെ വെള്ളം കുറവാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം വെള്ളത്തിന് എന്തു ചെയ്യുമെന്നുള്ളത് അറിയില്ല തീരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രാവശ്യം